ഹലോ അസലാമു അലൈക്കും റെഹ്മത്തു ഹോട്ടൽ അല്ലേ അവിടെ തലശ്ശേരി ബിരിയാണി ഉണ്ടോ ആഹ് ഉണ്ടല്ലേ ഞാനെൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആണ് അത് പെട്ടെന്ന് കഴിക്കാൻ ഓർമ്മ വന്നത് അവിടെ തലശ്ശേരി ബിരിയാണി ഉണ്ടോ ആഹ് ഉണ്ടല്ലേ അപ്പോൾ നമ്മളൊരു മൂന്നാല് പേരുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ പോഷനലൊക്കെ എങ്ങനാ ഉണ്ടാവുക മൂന്നു നാല് പേർക്ക് എത്ര ബിരിയാണി വേണം എന്നാൽ നിങ്ങള് ഒരു മൂന്നു ഫുൾ ബിരിയാണി ചിക്കൻ വെച്ചൊ ലെഗ് ഓൺ ചിക്കൻ ആയിരിക്കുകയില്ലെ ആഹ് ഓക്കെ ഓക്കെ എന്നാൽ നിങ്ങള് അത് രണ്ട് മണി ആകുമ്പോളത്തേക്ക് വീട്ടിൽ ഓർഡർ ഡെലിവറി ചെയ്യ് നിങ്ങൾ വിളിച്ചോ ഞാൻ അഡ്രസ് പറഞ്ഞു തരാം